ഹലോ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നെ ഇന്ന് ഒൻപത് മണിക്ക് വരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ സമയം ഇത്രയായിട്ടും ആള് വന്നില്ല നിങ്ങള് വൈകുന്നതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഇന്ന് പത്ത് മണിക്ക് ഒര് മീറ്റിംഗ് ആയിട്ട് അർജൻറ്റ് ഒരു മീറ്റിംഗ് ഉള്ളതു കൊണ്ടാണ് ഞാന് ഒമ്പത് മണിക്ക് വരണമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ വന്നില്ല എന്തായാലും ഞാൻ മറ്റൊരു മാർഗം വഴി പോ പോകുകയാണ് എന്തായാലും ഞാൻ ബുക്ക് ചെയ്ത് ക്യാബ് ഒന്ന് റദ്ദാക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നിപ്പം എന്തായാലും ഇപ്പോൾ മീറ്റിംഗ് പത്തുമണിക്കാണ് അപ്പോൾ എനിക്ക് വേറെ ഒരു വഴി ഇല്ല അതുകൊണ്ട് ഞാനിപ്പം ബുക്ക് ചെയ്തത് റദ്ദാക്കുവാണ് എന്തായാലും ഇനി ഒരു ഇനി എന്തെങ്കിലും ഒരത്യാവശ്യഘട്ടത്തിൽ ഞാൻ നിങ്ങളെ തന്നെ വിളിക്കുന്നതായിരിക്കും നിങ്ങളുടെ ക്യാബ് തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴെന്തായാലും എനിക്ക് മീറ്റിംഗിന് പത്തുമണിക്ക് ചെല്ലേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോഴ്തന്നെ സമയം ഒരുപാട് താമസിച്ചു എന്നാലും എനിക്ക് പോയേ പറ്റു അതുകൊണ്ട് ഞാനിത് റദ്ദാക്കുവാണ് ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളെ തീർച്ചയായും വിളിക്കാം